ഹലോ ഇവന്റ് മാനേജ്മെന്റല്ലേ എൻ്റെയൊരു കസിൻ്റെ കല്യാണമാണ് അതു നിങ്ങൾ ഇങ്ങനത്തേത് ഏറ്റെടുക്കുന്നുണ്ടെന്നറിഞ്ഞു അതുകൊണ്ട് വിളിച്ചതാണ് ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിനു ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ഒക്ടോബർ പത്താം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഈ ഓഡിറ്റോറിയമൊക്കെ നിങ്ങളുടെ വക ഉണ്ടാവില്ലേ അത് വീട്ടിലെ ഫങ്ക്ഷൻ ആണെങ്കിലും നിങ്ങളുതന്നെ ഇതാക്കി തരില്ലേ അപ്പോൾ ഫുഡ്ഡെങ്ങനെയാണ് എമൗണ്ടോ ആയിക്കോട്ട് ആയിക്കോട്ടെ പിന്നെ നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് പോവാൻ വേണ്ടിയിട്ട് ഫങ്ങ്ക്ഷൻ ഉണ്ടാവില്ലേ ഏതാണെങ്കിലും നടക്കും ഏതാണെങ്കിലും നടക്കുമോയെന്ന് മറ്റേ കാറാണെങ്കിൽ കാറ് അതുപോലെ തന്നെ ബസ്സാണെങ്കിൽ ബസ്സ് അങ്ങനെ ആയിക്കോട്ട് ആയിക്കോട്ട് ഞാനൊന്ന് വിളിക്കാം കേട്ടോ ആ ഞാനിവിടെയൊന്ന് പറഞ്ഞിട്ട് വിളിക്കാം